വീട്ടിലായാലും കൃഷിയിടങ്ങളിലായാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിക്കാതിരിക്കാനായി നമ്മൾ ഒരുപാട് കൗതുക കലകളിൽ ഏർപ്പെടുന്നു അതിൽ ചിലതൊക്കെയാണ് നാടൻപാട്ടുകൾ സംസാരം അങ്ങനെയൊക്കെ നല്ല രസകരമായ സംസാരങ്ങളായാലും നമ്മളെ രസിപ്പിക്കുന്ന തമാശകളായാലും പാട്ടുപാടലായാലും ചിലരൊക്കെ ജോലികൾ ചെയ്യുന്നതിനിടയിൽ നൃത്തം വച്ചുകൊണ്ട് ചുവടുകൾ വച്ചുകൊണ്ട് പണിയെടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് കൃഷിയിടങ്ങളിലായാലും വീട്ടു ജോലി ചെയ്യുമ്പോഴായാലും എന്ത് എന്തു തരം ജോലി ആയിക്കോട്ടെ അതിൽ ഒരു കൗതുകം തോന്നിയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാതെ ചെയ്താൽ ഒരു രസം ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ടു ചെയ്യാനായി അതിൽ കുറച്ച് സന്തോഷിപ്പിക്കുന്ന എല്ലാ തിരക്കിനിടയിലും സന്തോഷിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ ജോലി മുന്നോട്ട് നീങ്ങും നമുക്കത് ചെയ്യാനുള്ളൊരു സന്തോഷവും അതിനുള്ളൊരു അ ആ അതിനുള്ളൊരു എനർജിയും അത് നൽകുന്നു അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുമ്പോൾ പല ആളുകളും നാടൻ പാട്ടുകൾ പാടുന്നതായും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പാടങ്ങളിലൊക്കെ വെയിലത്ത് ജോലി ചെയ്യുന്നവർ അവരവരുടെ വെയിലും ചൂടും അവരുടെ വിയർപ്പും കഷ്ടപ്പാടുമൊക്കെ മറക്കാനായി അവർ നാടൻ പാട്ടുകൾ പാടി സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു ഈ ജോലിയിൽ ഏർപ്പെടുന്നത് അവരെ ചിരിക്കാൻ സന്തോഷത്തിലേക്ക് നയിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് അത് വളരെ നല്ല ഒരു രീതിയാണ് കല കലകളെ ജോലിയോടൊപ്പം ഇടകലർത്തി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജോലി ആയാലും കല ആയാലും വളർത്താനും അതൊക്കെ ഒരു സാംസ്കാരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കുന്നുണ്ട്